ആ ആ ഹലോ ഹലോ ആ ഉണ്ടുണ്ട് കേൾക്കുന്നുണ്ട്

ആ ആ ആ പുതിയ കണക്ഷൻ എടുക്കുവാണോ ഒരു വീടിന് രണ്ട് സിലിണ്ടർ കൊല്ലത്തിൽ വ കൊല്ലത്തിൽ വരുമ്പോൾ ഒരു പന്ത്രണ്ട് സിലിണ്ടർ നിറച്ചുകൊടുക്കും ഉം സബ്സിഡി സബ്സിഡി അതാണ് അത് വേണം

അത് വേണം ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ആണ് വേണ്ടത് പിന്നെ ഒരു കുറ്റിക്ക് തൊള്ളായിരത്തി അൻപത് റുപ്യ ഉം ഉം

വീട്ടിൽ എത്തിക്കണമെങ്കിൽ അത് തൊള്ളായിരത്തി അൻപത് മറ്റേ ഏജൻറിന് ഇവിടെ കൊടുക്കേണ്ടതില്ല പിന്നെ വീട്ടിലെത്താനുള്ള ചാർജ് അധികം വരും മുപ്പത്തഞ്ച് റുപ്യ പിന്നെ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെറിയൊരു പൈസയും കൂടി ഒരു കുറച്ചുകൂടി വേറെ അധികമായിട്ട് വരും പിന്നെ ബുക്ക് ചെയ്താൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഗ്യാസ് കിട്ടുള്ളൂ അങ്ങനെ ഒക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഈ ആ ബുക്കിംഗ് നമ്പർ ഉണ്ട്